എൻ്റെ അനുഭവത്തിൽ ഹൈക്കിങ്ങിനിടയ്ക്ക് വഴിതെറ്റി പോകേണ്ട സാഹചര്യം എനിക്ക് ഇന്ന് വരെ വന്നിട്ടില്ല കാരണം നമ്മൾ ഒറ്റപ്പെട്ട് അങ്ങനെ പോയിട്ടില്ല നമ്മൾ ഒരു കൂട്ടായിട്ടാണ് പോവാറ് പക്ഷേ നമ്മുടെ ഇടയിൽ കൂട്ടുകാർക്കിടയിൽ ഇങ്ങനെ വഴി തെറ്റി പോയ കുറേ സാഹചര്യങ്ങൾ ഉണ്ട് അതിൽ കുടുങ്ങി പോയിട്ട് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം ഈ ഹൈക്കിങ്ങിനിടെ ഫോണിൻ്റെ സിഗ്നൽ കട്ട് ആകുക എന്നുള്ള ഒരു കുഴപ്പം ഉണ്ട് അതായത് നമുക്കൊന്ന് ആശയ വിനിമയം നടത്താനോ ഒരു മെസ്സേജ് അയക്കാനോ ഒരു ഫോൺ കോള് നടത്താനോ ആയിട്ട് കഴിയില്ല ആ സന്ദർഭത്തിൽ നമ്മളേറെ ബുദ്ധിമുട്ടാറുണ്ട് നമ്മൾ എറെ പേടിക്കാറും കൂടെ ഉണ്ട് എവിടെപ്പോയി കാണുന്നില്ല എന്നുള്ള ഇതിൽ ഏറെ ബുദ്ധിമുട്ടാറുണ്ട് പല സാഹചര്യങ്ങളിലും നമ്മൾ കുറച്ചേലും തപ്പിപ്പിടിക്കുക നമ്മുടെ ശബ്ദത്തിൽ നമ്മൾ ഒച്ചത്തിൽ വിളിക്കുമ്പോൾ എവിടെയെങ്കിലും മറുപടിയായിട്ട് ഒരൊച്ച വരുമ്പോൾ ആ ഒരു ഇതിലാണ് നമ്മൾ ആളെ കണ്ടെത്തുക കാരണം ചിലപ്പം ഇടുങ്ങിയ വഴിയിലൂടെയും ഒക്കെ കയറി പോകുമ്പോൾ ഒരുപക്ഷേ എന്തെങ്കിലും ഒരു സന്ദർഭത്തിൽ ആ വല്ല മൃഗങ്ങളുടെ ഇത് വരുമ്പം പലതും പല ദിശയിലോട്ടായിരിക്കും ഓടുക അങ്ങനെ തുടങ്ങിയ സാഹചര്യങ്ങൾ നമ്മുടെ ഇടയിൽ വന്നിട്ടില്ല പക്ഷേ അങ്ങനെ വന്നാലും ഓടിയാലും നമുക്ക് തിരികെ ഒന്നിപ്പിക്കാനായിട്ട് ഒത്തിരി പാടാണ് പിന്നെ നമ്മൾ അതിൽ ആ മുൻകരുതലായിട്ട് നമ്മൾ ഒരുമിച്ച് തന്നെയാണ് പോകാറുള്ളത് നമ്മൾ ഒറ്റയ്ക്കായിട്ടുള്ള പോക്ക് നമ്മൾ അങ്ങനെ നമ്മുടേത് അങ്ങനെ നടന്നിട്ടില്ല നമ്മൾ വഴിതെറ്റിപ്പോയാൽ നമ്മൾ അതിൽ പരിഹരിക്കണം പിന്നെ അതിൽ കുറേ കാര്യങ്ങളും കുറെ മുൻകരുതലുകളെന്ന് പറയുന്നത് നമുക്കേറെ അത്യാവശ്യമായിട്ടുള്ള ഒരു ജീവിത ഒരു സംഭവമാണല്ലോ നമുക്ക് കുടിവെള്ളം എന്ന് പറയുന്നത് നമുക്ക് വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാനായിട്ട് കഴിയത്തില്ല വെള്ളം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല മറ്റെ അതിൽ നമ്മൾ വെള്ളമോ നമ്മൾ ട്രക്കിങ്ങിൻ്റെ ഇടയ്ക്ക് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ അട്ടയുടെ കടിയും ഈ കല്ലും മുള്ളും ഒക്കെ കുത്തിക്കയറുന്ന സന്ദർഭങ്ങളിലും നമ്മൾ ഫസ്റ്റെയ്ഡ് മെയിൻ ആയിട്ട് സ്വീകരിക്കണം ഫസ്റ്റെയ്ഡില് നമ്മള് മരുന്ന്കളും ആവശ്യമായ തുന്നിക്കെട്ട് കെട്ടാൻ വേണ്ടിട്ട് പറ്റുന്ന ഡ്രസ്സിംഗ് ഐറ്റംസെല്ലാം നമ്മള് കരുതണം വെട്ടം വല്ല ഒരു ടോർച്ചോ എമർജൻസിയോ അങ്ങനെതെ തുടങ്ങിയ സാധനങ്ങൾ നമ്മൾ എടുക്കണം ഭക്ഷണ സാധനങ്ങൾ അത് നമ്മുടെ പരിസ്ഥിതിക്ക് കുഴപ്പം വരുത്താത്ത രീതിയിലുള്ള ഭക്ഷണ സാധനം അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം നമ്മൾ സമൂഹത്തിൽ ഇപ്പളും കുറക്കാൻ നോക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ അതും അനുസരിച്ച് തന്നെയാണ് നമ്മൾ മുന്നേറുക പിന്നീട് അതിൽ ഓരോ നമുക്ക് ജീവിത രക്ഷാ സാധനങ്ങൾ ഒരു ഒരു കത്തിയോ ഇപ്പം എന്തെങ്കിലും അത്യാവശ്യത്തിനൊന്ന് കുത്തി നടക്കാൻ വേണ്ടി ഒരു വടിക്ക് വേണ്ടിയിട്ട് അതുപോലെ ഒരു വടി വെട്ടാൻ വേണ്ടി അങ്ങനെത്തെ ആണ് അങ്ങനെ കാര്യങ്ങളും ഒക്കെ നമുക്ക് വേണം ഏറെ ദുഷ്കരമായ എന്നാൽ ഇപ്പോഴത്തെ കാലത്ത് ചെറുപ്പക്കാരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒരു സംഭവമാണ് ഈ ഹൈക്കിങ് ട്രക്കിംഗ് തുടങ്ങിയ ഓഫ് റോഡ് എന്ന് പറയുന്നതൊക്കെ അതിൽ നമ്മൾ ഏറിയ പങ്കും വഹിക്കാറുണ്ട് നമ്മുടെ ഞങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾക്ക് അതിനോടാണ് ഏറിയ താൽപര്യവും